ആ പറയൂ അതെ ആ ഓക്കെ

ആ അതായത് ഇപ്പം വീട്ടിൻ്റെ മുകളിൽ രണ്ട് നിലയാണോ വീട് അതോ ഒരു നിലയോ എങ്ങനെ ആണ് വീട് ഇപ്പോൾ ആ ഓക്കെ അപ്പം മുകളിൽ മൊത്തം വാർപ്പ് കഴിഞ്ഞോ നിങ്ങളുടെ അതെ മുകളിൽ ഇനി ഇപ്പം എന്താ ചെയ്യണ്ടേ അത് പ്ലെയിൻ ആയിട്ട് ഇടാണോ അതോ ഓട് വെക്കുന്നുണ്ടോ അതോ അതിൻ്റെ മുകളിൽ ചെറിയ അങ്ങനത്തെ എന്തേലും പരിപാടി ഉണ്ടോ പ്ലെയിൻ ആയിട്ട് തന്നെ ഇടാനാണ് ആ അപ്പം നമുക്ക് വീടിൻ്റെ മുകളിൽ ഉള്ള പണി ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം പിന്നെ നമുക്ക് സെപ്പറേറ്റ് എടുത്ത് പറയണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ പൈപ്പും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി മേടിച്ചാൽ അത് വേറെ ചിലവാണ് മറ്റേത് ഇത് മറ്റേ നിങ്ങള് ഇത് സിമൻറ്റ് ഇട്ട് പണിയാൻ അല്ലേ ആ ഓക്കെ അപ്പം ഇത് വീടിൻ്റെ മുകളിൽ തന്നെ പണിയാണ് നല്ലത് മറ്റേത് പറഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചിലവാണ് ഇത് ആവുമ്പം വീട്ടിൻ്റെ മുളിൽ തന്നെ നടക്കേം ചെയ്യും കിണർ അടുത്തന്നെ ആണോ കുറച്ച് ദൂരം ഉണ്ടോ എങ്ങനെ ആണ് അത് ആ ഓക്കെ കുഴൽ കിണർ ആണോ ആ ഓക്കെ ഓക്കെ അതിന് മുൻപ് ഉപയോഗിച്ചുണ്ടായിരുന്ന അങ്ങനെ മോട്ടറും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആ ഓക്കെ ആ പഴയ വീടിൻ്റെ ഇതന്നെ ആണോ അപ്പം അതിൽ ആ ഓക്കെ അപ്പം നമുക്ക് ഈ പദ്ധതിക്ക് കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ മേടിക്കണ്ടി വരും പിന്നെ ഇപ്പം പൈപ്പും കാര്യങ്ങളും അത് എസ്റ്റിമേറ്റ് ഇട്ട് തരാം പതിനഞ്ചായിരം ലിറ്റർ അല്ലേ പറഞ്ഞത് ആ അപ്പം കുറച്ച് എന്നാലൊരു പത്ത് പത്ത് പതിനഞ്ച് കിലോ ഇരുമ്പ് മറ്റേത് കമ്പി വേണ്ടി വരും വാർക്കേണ്ടതിന് ആയിട്ട് പിന്നെ ഒരു പത്ത് ചാക്ക് പത്ത് ചാക്ക് സിമൻറ്റ് വേണം പിന്നെ ഒരു വണ്ടി എം സാൻഡ് വേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് എത്ര ദിവസത്തിന് ഉള്ളിൽ ആണ് പണി തീർക്കേണ്ടത് രണ്ടാഴ്ചയ്ക്ക് ഉള്ളിലാണോ രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ നടക്കില്ല എന്താ വച്ച് കഴിഞ്ഞാൽ അത് നമ്മളിപ്പം നാളെ രാവിലെ അല്ലെങ്കിൽ മറ്റന്നാൾ ആയിട്ട് പണിക്ക് വന്നാൽ കൂടെ ഒരു മൂന്ന് നാല് ദിവസത്ത സെറ്റിംഗ് ടൈം എടുക്കും ഓക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് ആ നമ്മൾ മാക്സിമം ഒരു ദിവസത്തിന് ഉള്ളിൽ രണ്ട് ദിവസത്തിന് ഉള്ളിൽ പണി തീർത്ത് തരാം പക്ഷേ സെറ്റിംഗ് ടൈം എന്തായാലും ഒരു രണ്ട് മൂന്ന് ഒരു അതായത് അതിന് സമയം കൊടുക്കണം അല്ലാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിപ്പോകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ലീക്കേജും കാര്യം ഒന്നും വരാൻ പാടില്ലല്ലോ അപ്പം അതിന് അത് കുഴപ്പം ഇല്ല നമ്മൾ വർക്ക് അടുത്ത് ചെയ്ത ഒരിടത്ത് വേണമെങ്കിലും ചോദിച്ച് നോക്ക് നമ്മൾ നമ്പർ ഒക്കെ തരാം അവരടുത്ത് നമ്മൾ വർക്ക് ഒക്കെ ക്ലീൻ വർക്ക് ആണ് അപ്പം നമ്മൾ പിന്നെ ഡെയിലി മൊത്തം കരാറും എടുക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അൻപത്തെട്ട് അറുപതിൻ്റെ ഉള്ളിൽ എസ്റ്റിമേറ്റ് ഇട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ തരാം കാരണം ഒരു പത്ത് മുപ്പതിൻ്റെ അടിത്തന്നെ ഈ സംഭവത്തിൻ്റെ സാധങ്ങളും മുപ്പത് നാൽപ്പത് റുപ്യേൻ്റെ സാധങ്ങൾ ഒക്കെന്നെ വരും പിന്നെ നമുക്ക് ചിലവും കാര്യങ്ങളും എല്ലാം ഇട്ട് എന്തായാലും ഒരു അറുപത് റുപ്യേൻ്റെ അടുത്ത് പൈസ വരും അപ്പം നിങ്ങൾ പൈസ അത് സാ

വേണ്ട നമ്മുടെ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും ഇപ്പം നിങ്ങൾ മറ്റേ അവർക്ക് രാവിലത്തെ ഭക്ഷണം മാത്രം റെഡി ആക്കിയാൽ മതി രണ്ട് നേരത്തേക്കുള്ള ഭക്ഷണം റെഡി ആക്കണം പിന്നെ അതിന് സാധങ്ങൾ നിങ്ങൾ എടുക്കുമോ അതോ നമ്മൾ കൊണ്ട് വരണോ എന്താ വേണ്ടത് ആ ഓക്കെ അപ്പം നമ്മൾ ആ ഓക്കെ അപ്പം നമ്മൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് കാര്യങ്ങൾ ഇപ്പോൾ മൊത്തം എത്ര ഒക്കെ ആവും ഇതൊക്കെ നോക്കീട്ട് ചെയ്യാം വീട്ടിൻ്റ മുകളിൽ പറയുമ്പം കയറാൻ മറ്റേ കോണി വല്ലതും ഉണ്ടോ അങ്ങോട്ട് കയറാൻ വല്ലതും അതേപോലെ ആ ഓക്കെ ഓക്കെ ആ ശരി അപ്പം ആ വേറെ ഒന്നും അല്ല അത് സാധങ്ങൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് പോകാനുള്ള ഇത് നോക്കാനെ ആ ഓക്കെ അപ്പം നമ്മൾ ഇതിൻ്റെ സാധങ്ങൾക്ക് ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് നമ്മുടെ ഇവിടെ അടുത്ത് ശിവദം ഹാർഡ്വെയറീന്ന് പറഞ്ഞിട്ട് ഷോപ്പ് ഉണ്ട് അവിടെന്നാണ് നമ്മൾ എല്ലാം എടുക്കാറ് ഓക്കെ അപ്പം നിങ്ങൾ അതിൻ്റെ എമൗണ്ട് അവിടെ അടച്ചാൽ മതി പിന്നെ എം സാൻഡിൻ്റെയും കാര്യങ്ങൾ ഒക്കെ വണ്ടിക്ക് വാടക അതൊക്കെ നിങ്ങൾ കൊടുത്തോളണം നമ്മൾ സാധനങ്ങൾ എല്ലാം അവിടെ വരും ഓക്കെ അപ്പം അതിൻ്റെ വാടക കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ തന്നെ കൊടുക്കണം ആ ആ ശരി അപ്പം മാഡം അപ്പം ഞങ്ങൾ എന്തായാലും രണ്ട് ദിവസത്തിന് ഉള്ളിൽ വരാം ചേച്ചി